ഞാനൊരു ക്രിസ്ത്യാനിയായിട്ടാണ് ജനിച്ചത് അതുപോലെ തന്നെ സമൂഹത്തിലെ നമ്മുടെ എൻ്റെ മതം എന്നെ പഠിപ്പിച്ചത് സമൂഹത്തിലുള്ള എല്ലാവരെയും നമ്മളെ അവരുടെ സാമൂഹിക കാര്യങ്ങളില് ഇടപെടുകയും സമൂഹത്തെ സേവിക്കുകയും സാമൂഹിക സേവനത്തെ കുറിച്ച് ഞങ്ങളുടെ സഭ തന്നെ നല്ല രീതിയിലാണ് ഞങ്ങൾക്ക് ഒരു പ്രബോധനവും അതുപോലെ തന്നെ പള്ളിയിൽ നിന്ന് അച്ചന്മാരുടെ ഞായറാഴ്ചത്തെ കുർബാനകളിൽ നിന്നുള്ള പ്രസംഗത്തിൽ നിന്നും ഒക്കെ നമ്മള്ക്ക് കിട്ടുന്ന ആ ഒരു പരിശീലനം ഈ വളരെ വിലപ്പെട്ട പരിശീലനമാണത് കാരണം സമൂഹത്തിൽ സാമൂഹി മനുഷ്യനൊരു സാമൂഹിക ജീവിയായിട്ട് ഇരിക്കുമ്പോൾ സമൂഹത്തിൽ അവന് സമൂഹത്തിൻ്റെ കാര്യങ്ങളിൽ ഇടപെട്ട് സാമൂഹിക സേവനം ചെയ്യാൻ ബാധ്യസ്ഥനാണ് കാരണം നമ്മളെ പോലെ നിന്നെ പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞ യേശുക്രിസ്തുവിൻ്റെ വചനങ്ങള് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ വേണ്ടിയിട്ട് നമ്മള് ഇത് നല്ല സേവനങ്ങള് സമൂഹത്തിൽ ചെയ്യണം അത് നമ്മുടെ ഭാഷയോ മതമോ സംസ്കാരമോ ഒന്നും നമ്മള് ഒന്നും വളരെ പാവങ്ങളായ മനുഷ്യരുണ്ട് അതുപോലെ തന്നെ സാമ്പത്തിക ശേഷിയുള്ളവരുണ്ട് ആരു തന്നെ ആയാലും അവർക്ക് ഒരു കഷ്ടത വരുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ അവരെ സഹായിക്കുന്നാണ് ഒരു നല്ല അതുപോലെ തന്നെ നമ്മളെ സാമ്പത്തിക മായി പിന്നോക്കം നില്ക്കുന്നവര് ഉണ്ട് നമ്മുടെ സമൂഹത്തില് അവര് നമ്മളെ ഏത് മതമാണോ ഏത് ജാതിയാണോ എന്നൊന്നും നോക്കാതെ അവർക്ക് അവർക്ക് ഈ അവശ്യ സമയത്ത് കണ്ടറിഞ്ഞ് നമ്മളവരെ സഹായിക്കുന്നതാണ് യഥാർത്ഥമായ ഒരു സമൂഹ സാമൂഹിക സേവനം അതുപോലെ തന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവര് ഇപ്പോള് തന്നെ നമ്മൾക്ക് അടുത്തയിടെ നമ്മള് കണ്ടു വയനാട് വായനാടുണ്ടായ ആ ദാരുണമായ സംഭവം പ്രകൃതി കലിതുള്ളി നിരവധി ജീവനുകൾ എടുക്കപ്പെട്ട സമയം അത് നമ്മള് കാണണം ജീവിതത്തില് നമ്മളെ പോലെ തന്നെ സ്വപ്നങ്ങളും കണ്ട് ജീവിച്ച മനുഷ്യര് ഒരു സുപ്രഭാതത്തില് നമ്മള് അറിയാതെ തന്നെ മരണപ്പെട്ടു പോകുമ്പോൾ നമ്മള്ക്കുണ്ടാകുന്ന പ്രയാസങ്ങള് അത് സമൂഹത്തിൻ്റെ ഒരു ബാധ്യതയായി നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിലെ വ്യക്തികളെന്ന നിലയിൽ നമ്മളവരെ കണ്ടുകൊണ്ട് അവരെ നമ്മള് സഹായിക്കണം അത് അങ്ങനത്തുള്ള സാമൂഹിക സേവനങ്ങളില് നമ്മള് വളരെ തല്പരരായി പ്രവർത്തിക്കുന്നതാണ് ജീവിതത്തില് അതുപോലെ തന്നെ ഈ പ്രായമായ വ്യക്തികള് മുതിർന്നവരെ നമ്മള് അവർക്ക് വേണ്ട സഹായങ്ങള് ചെയ്തു കൊടുക്കുന്നതില് നമ്മള് തല്പരരായിരുന്നെങ്കിൽ മാത്രമേ അവിടെ സാമൂഹിക സേവനങ്ങളില് നമ്മള് തല്പരരായി നമ്മളെ കൊണ്ട് ചെയ്ത് കഴിയാലാവുന്ന സഹായങ്ങള് സാമ്പത്തികമായും ശാരീരികമായും എല്ലാം ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് യഥാർത്ഥ ഒരു സാമൂഹിക സേവനം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്